ചെടികൾ വളർത്താൻ ഞങ്ങൾ കൂടുതലായിട്ടും കറുത്ത മണ്ണാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കറുത്ത മണ്ണിൽ ചെ നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ അപ്പോൾ ചെടി വളർന്നു വരാനും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് മറ്റേ കറുത്ത മണ്ണാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ചുവന്ന മണ്ണിൽ വളം കുറവാണ് അപ്പോൾ അത് കാരണം ചെടി വളർന്നു വരാനും കുറച്ച് പാടാണ് ചെടി പിടിച്ചു വരണമെങ്കിൽ അതായത് അതിൻ്റെ വേരുകളൊക്ക പിടിച്ചു വരണമെങ്കിൽ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും കറുത്ത മണ്ണാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ചെടി നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളവും അതായത് ചാണകവും ഈ കറുത്ത മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മറ്റേ പാത്രത്തിലാക്കി കവറിലോ ഇട്ടിട്ട് അതിനകത്താണ് നമ്മൾ ചെടി വളർത്താറ് വള വളർത്താറുള്ളത് അപ്പോൾ അത് കുറച്ച് കൂടെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് ചെടി വളർന്നു വരുവാണ് പിന്നെ നമ്മൾ വളം യൂസ് ചെയ്യാറുണ്ട് വളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകമാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക പിന്നെ അല്ലാത്ത വളങ്ങളുണ്ട് അതായത് കോഴി വളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും പിന്നെ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള വളങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചെടി വളർന്നു ഒന്ന് വലുതായി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് ഇടയ്ക്ക് വല്ല ജീവികളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെടി നാശ നാശമായി പോകാനുള്ള കാരണം കൊണ്ട് നമ്മൾ മറ്റേ കീടനാശിനികളൊക്കെ യൂസ് ചെയ്യാറുണ്ട്